കോഴിക്കോട് ജില്ലയിൽ മെയിനായിട്ട് ആഘോഷിക്കുന്ന പല പരിപാടികൾ കാര്യങ്ങളൊക്കെയുണ്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ കാപ്പാട് ബീച്ചിൻറവിടെ ഇടക്കിടക്ക് നമ്മളുടെ സർക്കാരിൻ്റെ തന്നെ പല പദ്ധതികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഉത്സവങ്ങൾ പോലെ ആഘോഷിക്കുന്ന പല രീതിയിലുള്ള പരിപാടികൾ കാര്യം ഉണ്ട് ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ആഘോഷിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ പേപ്പർ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള പരിപാടികൾ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൊതുവായിട്ടുള്ള പരിപാടികൾ ആഘോഷിക്കുന്നുണ്ട് ഓണം ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലായിടങ്ങളിലും ഓണാഘോഷിക്കുന്ന പോലെ നമ്മളവിടെ കോഴിക്കോടും ഓണാഘോഷിക്കാറുണ്ട് അപ്പോൾ നല്ല രീതിയിലാണ് ഓണവും ക്കെ ആഘോഷിക്കാറുള്ളത് പിന്നെ നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ദീപാവലി ആഘോഷിക്കാറുണ്ട് ദീപാവലി നല്ല രീതിയിലുള്ള ദീപാലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആഘോഷവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ദീപാവലി ആഘോഷിക്കുന്നുണ്ട് പിന്നെ ഹോളി ഹോളി വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ കാര്യങ്ങൾ ഒന്നു ഇല്ല ചില കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് മാത്രമേ നമ്മളങ്ങനെ കൂടുതലായിട്ടും ആഘോഷിക്കാറുള്ളൂ പിന്നെ സംക്രാന്തി സംക്രാന്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ വയസ്സായവരുടെ പല രീതിയിലുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഉത്സവങ്ങൾ അതായതു കോഴിക്കോടുള്ള പല രീതിയിലുള്ള പല സ്ഥലങ്ങളിലുള്ള അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും ആഘോഷിക്കാറുണ്ട്